എൻ്റെ കുട്ടി ഇവിടെ ഒരു എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നു അപ്പോള് അവിടുത്തെ ഫീസ് എന്നു പറയുമ്പോൾ അഡ്മിഷൻ ഫീസ് പി ടി എ ഫണ്ട് കമ്പ്യൂട്ടർ ഫീസ് നമ്മള് ഏതെങ്കിലും ഒരാക്ടിവിറ്റീസില് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതായത് ഡാൻസ് കരാട്ടെ ഫുട് ബോൾ ചെണ്ടകൊട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതിനു സെപ്പറേറ്റ് ഫീസുണ്ട് പിന്നെ ടെക്സ്റ്റ് യൂണിഫോം സ്റ്റാമ്പ് ആനുവൽ ഡേ ഫീ ഒക്കെയുള്ളു അതിപ്പോള് നമ്മുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ട് സർക്കാരിൽനിന്നു കിട്ടുന്നതോടൊപ്പം നമുക്കു പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സഹായങ്ങള് സ്കൂളുകൾക്ക് വേണ്ടി ചെയ്തുകൊടുക്കണം സ്കൂളുകളിൽ ഉള്ള ഈ അണ് എയ്ഡഡ് സ്കൂളുകളെ അപേക്ഷിച്ച് നമ്മുടെ സ്കൂളുകള് അത്യന്താപേക്ഷിതമായി കുറഞ്ഞ ഒരു ഫീസ് ആണുള്ളത് എങ്കിലും ബസ് ഫീ അങ്ങനെയുള്ള ഫീസുകളുണ്ട് ഒരു കുട്ടിയൊക്കെയുള്ള കുടുംബത്തിനൊക്കെ അഫോഡീയ്യാവുന്ന തരത്തിലുള്ള ഫീസ് മാത്രമാണ് നമ്മള് സ്കൂളുകളിൽനിന്ന് ഈടാക്കുന്നത് എങ്കിൽ ഒന്നും അതില് അധികമോ കുട്ടികൾ ഉള്ള വീടുകളിൽ നിന്നും അതു മാതാപിതാക്കള് ഒരുപാട് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ട് നമുക്കു കൊടുക്കാം അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകളിൽ ഒരുക്കുന്നതിനു സ്കൂൾ തലത്തില് സ്കൂളുകാര് ഏർപ്പെടുത്തുന്നു ണ്ട് എങ്കിൽ കൂടി നമ്മുടെ പേരെൻസിൽ നിന്ന് വാങ്ങുന്ന ഫീസും അതവര് സ്കൂളിൻ്റെ സൗകര്യങ്ങൾക്കു വേണ്ടിയിട്ടുള്ളതാണ് അതൊരു ഫീസായിട്ട് നമ്മക്കെടുക്കാമെങ്കിൽ കൂടിയും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടത്തുന്നതിനും സ്കൂളുകളില് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തതിനും വേണ്ടി പേരെൻസിൽ നിന്നും ഈടാക്കുന്നൊരു ഫീസാണ് അത് കുട്ടികൾ കൊടുക്കണം ബാധ്യസ്ഥരാണ് അപ്പം ടീച്ചേഴ്സവർക്കന്നു പറ്റുന്ന വിധത്തിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഫീസോ ഇല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് എടുത്തുകൂടിയാണ് നമ്മുടെ സ്കൂളുകൾക്കുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകാര് ചെയ്തു തരുന്നത് സ്കൂളുകളുടെ പ്രവേശനത്തിനു വരുന്ന ഫീസ് ഒരുപാട് ഒന്നുമില്ല അഡ്മിഷൻ ഫീ ഉണ്ട് നമ്മളുടെ പി ടി എ ഫണ്ട് അത് പി ടി എ ഫണ്ടെന്നു പറയുമ്പോള് സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള ഒരു നല്ല കാര്യത്തിനുവേണ്ടി യൂസെയ്യാനും സ്കൂളിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുവേണ്ടിയും കുട്ടികളിൽ നിന്നും കളക്ട് ചെയ്ത ഒരെമൗണ്ടാണ് അതിൽനിന്നുതന്നെ നമ്മള് പി ടി എ ഫണ്ടിൻ്റെ കൂടെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് കൊടുക്കാനുള്ള സാലറി അത് കമ്പ്യൂട്ടർ ടീച്ചർ നമ്മള് സ്കൂളുകളിൽനിന്ന് സെപ്പറേറ്റ് ചെയ്ത് സർക്കാർതലത്തിൽ കിട്ടുന്ന ഒരപ്പോയിൻമെൻറ്റല്ല സ്കൂളുകാര് എടുക്കുന്ന ഒരഡ്മിഷനാണ് അപ്പോള് ടീച്ചറിനു കൊടുക്കുന്നതിനുള്ള സാലറിയും ഒക്കെ ചേർത്തുവരുന്ന ഒരു പി ടി എ ഫണ്ട് പിന്നെ ഡാൻസ് ഫീ കരാട്ടെ ഫീ ചെണ്ട പഠിക്കുന്ന ചെണ്ടകൊട്ട് ഫീ അങ്ങനെ കുറച്ച് ഫീസ് സ്റ്റാമ്പ് തന്നുവിടുമെങ്കിൽ സ്റ്റാമ്പിനുള്ള ഫീസ് കൊടുക്കണം കുട്ടികൾക്ക് ആനുവൽ ഡേയ്ക്ക് ഫീസ് കൊടുക്കണം ആനുവൽ ഡേ ഫീസെന്നു പറയുമ്പോള് ഒരുപാട് എമൗണ്ടില്ല ഒരതിന്റെയൊരു എക്സ്പെൻസെത്രയാണെന്ന് കാൽകുലേറ്റ് ചെയ്തിട്ട് ഇത്ര കുട്ടികളിൽനിന്ന് ഇത്ര വീതം നമുക്ക് വാങ്ങിയാൽ കിട്ടും എന്നുള്ളൊരു ഫീസാണ് അതിപ്പോള് പ്രവേശനത്തിനു തന്നെ ഫീസവര് വാങ്ങുന്നില്ല എങ്കിൽ കൂടിയും ചിലപ്പോഴൊക്കെ അതും കൂടെ മുൻകൂട്ടിക്കണ്ട് പ്രവേശന ഫീസ് വാങ്ങാറുള്ളതാണ് പ്രവേശനോത്സവത്തിന് മെയിനായിട്ട് നമുക്കു വരുന്ന ഫീസുകള് സ്കൂൾതലത്തിൽ വരുന്ന ഫീസെന്നു പറയുമ്പോള് പി ടി എ ഫണ്ട് അഡ്മിഷൻ ഫീസ് ടെക്സ്റ്റിൻ്റെ ഫീസ് കുറച്ച് വേറെ കുറച്ച് എക്സ്പെൻസും കൂടെ വരുന്നുള്ളൂ എങ്കിലും അതൊരു വലിയ എമൗണ്ടല്ല നമുക്കു നല്ലൊരു സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്നതിനുംവേണ്ടി നമ്മള് ഏർപ്പെടുത്തിയിരിക്കുന്നൊരു ഫീസ് ഉള്ളൂ അത് അൺ എയ്ഡഡ് സ്കൂളുകളെ അപേക്ഷിച്ച് അഡ്മിഷൻ ഫീസ് അങ്ങനെയുള്ള വളരെ കുറഞ്ഞ രീതിയിലാണ് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളില് വാങ്ങുന്നത് സ്കൂൾ യൂണിഫോം പുസ്തകം ടെക്സ്റ്റൊക്കെ നമുക്ക് സർക്കാര്തലത്തിൽ ഫ്രീയായി തരുന്നു